ആദ്യം തന്നെ പറയാം ഞാൻ ഒരു കായിക പ്രേമിയാണ് ചെറുപ്പം മുതലെ ക്രിക്കറ്റ് ക്രിക്കെറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചുമൊക്കെയാണ് ഞാന് വളർന്നത് അത് കൊണ്ട് ഇങ്ങനെ കായിക വിനോദങ്ങൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ് പിന്നെ എങ്ങനെ ഇത് അപ്ഡേറ്റായി നിൽ ക്കുന്നു എന്ന് ചോദിച്ചാൽ മെയ്നായിട്ട് സോഷ്യൽ മീഡിയ തന്നെയാണ് പണ്ടൊക്കെ ചെറുപ്പത്തിലെ സോഷ്യല് മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത കാലത്ത് കൂടുതലായിട്ട് പത്രത്തിലെ ഞാൻ മനസ്സിലാക്കിയത് പത്രം പിറ്റെ ദിവസത്തെ പത്രം വരാന് വേണ്ടി കാത്ത് നിൽക്കും ആരൊക്കെ ഔട്ടായി ആരൊക്കെ ഗോളടിച്ചു എന്നൊക്കെ പ്രീമിയര് ലീഗിലും ചാമ്പ്യന്സ് ലീഗിലെയുമൊക്കെ കളി കാണാനും അതിലത്തെ റിസള്ട്ട് അറിയാനും ആരാ ഈ ചാമ്പ്യന്സ് ലീഗ് അടിച്ചത് എന്നൊക്കെ അറിയാന് വേണ്ടിയിട്ടും പണ്ട് കുറേ കാലം പത്രത്തിനായി രാവിലെ ഇങ്ങനെ കാത്ത് നിൽക്കും

അതിലിങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആർക്കൊക്കെ പരിക്ക് പറ്റി ആരൊക്കെ ഇന്ന് ഇറങ്ങാന് സാധ്യത ഉണ്ട് ഇന്ന് ആരൊക്കെ ടീമിൽ വരും അല്ല റൂമേസും അല്ലാത്ത ഒഫിഷ്യലായ കാര്യങ്ങളൊക്കെ വരും ക്ലബിനെ കുറിച്ച് ഏതും പിന്നെ അതിൽ തന്നെ പല പരിപാ ടികളും ക്ലബ്ബുമായി ബന്ധപ്പെട്ട പലതും നടത്താറുണ്ട് പിന്നെ ബാര്സലോണയെ കുറിച്ച് പറയുക ആണെങ്കിൽ ബാര്സലോണ ലാ ലീഗിലാണ് കളിക്കുന്നത് ചാമ്പ്യന്സിലും കളിക്കുന്നുണ്ട് അതെ പോലെ അതിൽ ആരൊക്കെ ഗോളടിച്ചു കാര്യങ്ങളൊക്കെ മെയ്നായിട്ട് ഇപ്പം സോഷ്യല് മീഡിയ ഇത് പിന്നെ സ്പോര്ട്സിന് വേണ്ടിയിട്ട് വേറെ ഫോര് റ്റു ത്രീന്റെ അപ്ലിക്കേഷനും പിന്നെ വണ് ഫുഡ്ബോളിന്റെയും പിന്നെ അല്ലാതെ പലതിലും ഉണ്ട് പിന്നെ കളി കാണാറ് കൂടുതൽ ജിയോ സിനിമയിലാണ് ജിയോ സിനിമ ആവുമ്പോൾ ഫ്രീയാണ് ആർക്കും കാണാം എപ്പോഴും കാണാം ഫ്രീയാണ് എല്ലാ കോളിറ്റിയിലും നമുക്ക് കാണാം ഫ്രീയായത് കൊണ്ട് പിന്നെ അര്ജന്റീന വേള്ഡ് പിന്നെ രാജ്യത്തിൽ ഞാന് ഫുട്ബോള് സപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീന കുറച്ച് കാലം മെസ്സി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നത് അതും ഇതേ പോലെ ഓൾ കേരള അർജന്റീന ഫാൻസ് ഗ്രൂപ്പും ഓൾ ഇന്ത്യ അർജന്റീന ഫാൻസ് ഗ്രൂപ്പിലുമൊക്കെ അംഗമാണ് ഞാൻ അതിൽ ഇതേ പോലെ അപ്ഡേറ്റ് കാര്യങ്ങളും അടുത്ത കോപ്പ അമേരിക്കയില് ഏതൊക്കെ ടീം ആരൊക്കെ ടീമിലുണ്ടാവാന് സാധ്യത ഉണ്ട് ഏതൊക്കെ അർജന്റീനക്കാരാണ് നല്ല രീതിയിൽ കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ അറിയും പിന്നെ പിന്നെ അർജന്റീന പറയുമ്പോൾ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് ആ സമയത്ത് കൂടുതൽ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടായി ഇതേ പോലെ ആൾക്കാർ ഇതേ പോലെ സോഷ്യല് മീഡിയയെ കാര്യമായിട്ട് നോക്കാറ് അപ്പോൾ ഫാന് ഗ്രുപ്പുകൾ കൊണ്ടാണ് കൂടുതൽ മെച്ചം കാരണം നമ്മളെ ഫാന് ഗ്രൂപ്പിൽ എനിക്ക് അധികം നമ്മളെ അതെ ഇപ്പോൾ അര്ജന്റീനയാണങ്കിൽ അര്ജന്റീനയെ സപ്പോര്ട്ടു ചെയ്യുന്ന ആള്ക്കാരുള്ള ഗ്രൂപ്പായിരിക്കും നമ്മൾക്ക് അതി നനുസരിച്ചുള്ള നിര്ദ്ദേശവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും ആ ഗ്രൂപ്പിൽ പിന്നെ ക്രിക്കറ്റ് നോക്കുക ആണെങ്കിൽ ക്രിക്കറ്റ് ഞാന് ചെറുപ്പത്തിൽ കുറെ കണ്ടിരുന്നു ഇപ്പോൾ അങ്ങനെ കാണൽ കുറവാണ് ഐ പി എല്ലിൽ ഞാൻ ചെന്നൈയെ ആണ് സപ്പോര്ട്ട് ചെയ്യുന്നത് ചെന്നൈയെ സപ്പോര്ട്ടു ചെയ്യാൻ കാരണം എം എസ് ധോണി ഉണ്ടായത് കൊണ്ടാണ് എം എസ് ധോണി ഇപ്പോൾ ഞാന് ചെറുപ്പം മുതലെ എം എസ് ധോണി കളിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണലുണ്ട് അതിനും ഫാന് ഗ്രൂപ്സുണ്ട് ചെന്നൈ ഓള് കേരള ഫാന് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലും റണ്ണും കാര്യങ്ങളും ജയിച്ചോ മുംബൈ ആയിട്ടുള്ള കളി എങ്ങനെ സാധ്യത ഉണ്ടോ ജയിക്കാന് സാധ്യത ഉണ്ടോ പ്രെഡിക്ഷനും കാര്യങ്ങളുമൊ ക്കെ നമ്മളറിയും പിന്നെ ആരാണ് ടോപ്പ് സ്കോറർ ആരൊക്കെ ഇപ്പോൾ ഫോമിൽ ആർക്ക് പരിക്കുണ്ടോ പരിക്കില്ലെ ആരൊക്കെയാണ് കോച്ചിങ് ചെയ്യുന്നത് കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത് പ്ലെയേർസ് ആരൊക്കെയാണ് എത്ര രൂപ കൊടുത്താണ്

സോഷ്യല് മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊഴത്തെ കാലത്ത് സ്പോര്ട്സ്പരമായി നമ്മൾക്ക് കുറെ പെട്ടെന്നു പെട്ടെന്ന് നമ്മൾക്ക് വേഗം വേഗം വാര്ത്തകളും അറിവുകളുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയാന് നമ്മൾക്ക് കഴിയുന്നുണ്ട് ഐ പി എല്ല് ഇപ്പോൾ തുടങ്ങാന് പോവുകയാണ് ധോണി തന്നെയാണ് ചെന്നൈന്റെ ക്യാപ്റ്റന് അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഐ പി എൽ ചെന്നൈ എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഫുട്ബോളും ക്രിക്കറ്റും അല്ലാതെ അങ്ങനെ അധികം കാണാറില്ലെങ്കിലും പിന്നെ കാണാറുള്ളത് ബാഡ്മിന്റനാണ് ബാഡ്മിന്റൺ പണ്ട് ഒളിമ്പിക്സിലൊക്കെ ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ കണ്ടിരുന്നു പി വി സിന്ധു വെള്ളി നേടിയപ്പോൾ അതൊക്കെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇതേ പോലെ നടന്നതാണ് അപ്പോൾ ഇത് എല്ലാ സ്പോര്ട്ട്സിനും നമ്മൾക്കു താൽപര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫുട്ബോളും ക്രിക്കറ്റുമാണ് കൂടുതൽ താല്പര്യം ഫുട്ബോളില് അതെ പോലെ പ്രിമിയര് ലീഗും കാലീഗി അങ്ങനെ ടോപ് ഫൈവ് ലീഗ് അത്കൂടാതെ ഇപ്പോൾ മെസ്സി ഇപ്പോൾ കളിക്കുന്ന എം എല് എസ്സും റൊണാള്ഡോ കളിക്കുന്ന സൗദി സൂപ്പര് ലീഗും കാര്യങ്ങളുമൊക്കെ എല്ലാവരും കൂടെ കാണലുണ്ട് നമ്മളും കാണലുണ്ട് പിന്നെ റൊണാള്ഡൊ ഇപ്പോൾ അൽ നസറിലാണ് അല് നസറിലിപ്പൊ റൊണാള്ഡൊ നല്ല ഫോമിലാണ് കളിക്കുന്നത്

ഫോണിൽ ആവുമ്പോൾ പിന്നെ ടി വി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല സിഗ്നല് ഇല്ലാത്ത പ്രശ്നങ്ങളും മഴ പെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒന്നും ഫോണിൽ ഉണ്ടാവില്ല അതിൽ നെറ്റുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം പിന്നെ പ്രിമിയര് ലീഗ് ഇപ്രാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് അതെ പോലെ

ഇതു പോലെയുള്ള ഇതിനെയെക്കെ കൂടുതൽ ഇതേ പോലെ അറിയാനും അപ്ഡേറ്റ് അയക്കാനുമൊക്കെ സഹായിക്കുന്നത് പിന്നെ വേള്ഡ് കപ്പിന്റെ സമയം ആവുമ്പോൾ ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ഒക്കെ നാട്ടിലും പത്രത്തിലും ഒക്കെ ഇതാവും ഇപ്പോൾ പത്രത്തിൽ ന്യൂസ് നോക്കുന്ന ഭാഗാമാണ് പണ്ട് വേഗം പത്രക്കാരൻ പത്രം ഇട്ടാൽ വേഗം പോയി കണ്ട് പത്രത്തിന്റെ ലാസ്റ്റ് പേജ് തുറന്നു ലാസ്റ്റ് പേജിൽ നോക്കും ആരൊക്കെ ജയിച്ചത് കാര്യങ്ങൾ പിന്നെ ആരൊക്കെ ഇന്നിറങ്ങി എന്ന് രാത്രി ഉള്ള കാലം ഒക്കെ ആവുമ്പോൾ നമ്മൾക്ക് കാണാനോ അല്ല അതിനെക്കുറിച്ചുള്ള ഇതൊന്നും അറിയില്ല ഇപ്പം സോഷ്യല് മീഡിയയും കാര്യങ്ങളും ഇന്റര്നെറ്റ് ഇത്ര സജീവമായതുകൊണ്ട് നമ്മൾക്ക് സുഖമായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ മത്സരങ്ങളെ ഇപ്പോൾ ചാമ്പ്യന്സ് ലീഗ് കോര്ട്ടര് ഫൈനലിന് ഏപ്രിലിൽ നടക്കും അപ്പോൾ അതിന്റെയെല്ലാം ആവേശത്തിലാണ് എല്ലാ ഫുട്ബോള് പ്രേമികളും കാര്യങ്ങളുമൊക്കെ ബാര്സലോണയും ടോര്ട്ടുമുണ്ട് പി എസ് ജി ട്രയല് മാൻ്റഡെ സിറ്റി അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് ഇത് കളിക്കണത് ചാമ്പ്യന്സ് ലീഗ് കോട്ടര് ഫൈനലിൽ എത്തിയത് കോട്ടര് ഫൈനല് കഴിഞ്ഞ് സെമി ഫൈനല് ജൂണൊക്കെ ആവുമ്പത്തേക്ക് ഉണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചുള്ള അറിവൊക്കെ കിട്ടിയത് സോഷ്യല് മീഡിയ ആണ് കാര്യമായിട്ട് ഇപ്പൊഴത്തെ ഇതിൽ അപ്ഡേറ്റായിട്ട് നിൽക്കാന് കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് പിന്നെ പണ്ട് സ്പോട്സ് മാസികയൊക്കെ ഉണ്ടായിരുന്നു സ്പോട്സ് പറഞ്ഞ ഇത് മാസിക ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോ മാസവും അഞ്ചാം തീയ്യതി ഒക്കെ ആവുമ്പോഴാണ് നമ്മളെ ഇവിടെ കടയിലൊക്കെ വന്നിരുന്നത് അന്ന് നാൽപ്പത് ഉറുപ്പിക അതിന് അതിന് അപ്പോൾ പോസ്റ്ററും കിട്ടും ഈ നടുവത്തെ പേജിൽ ഇങ്ങനെ ഇത് അപ്പോൾ ആ മാസത്തെ വല്യ വല്യ ന്യൂസുകളും മാസം ആരാണ് എന്ന് നമ്മൾക്ക് ആ മാസം നല്ല കളിച്ച ഏതെങ്കിലും സ്പോട്സ് താരത്തിന്റെ കാര്യം നമ്മൾക്ക് കിട്ടുക അപ്പോൾ വേള്ഡ് കപ്പ് ആവുമ്പോൾ ഇതേ പോലെ എല്ലാ പത്രത്തിന്റെ ആള്ക്കാരും പത്രത്തിന്റെ ആള്ക്കാരും ഇതേ പോലെ സ്പോട്സ് മാസികയും കാര്യങ്ങളും തുടങ്ങും എല്ലാ സ്ഥിരമായിട്ടുള്ളത് മനോരമന്റെ ഒരു സ്പോര്ട്സ് പറഞ്ഞ ഒരു പുസ്തകാണ് അതിൽ ഇപ്പോഴും കിട്ടും പോസ്റ്ററും കാര്യങ്ങളും വേള്ഡ് കപ്പിൽ നമ്മളാവുമ്പോൾ ഫിക്സ്റ്ററും കാര്യങ്ങളും ഒക്കെ പോസ്റ്ററ് രൂപത്തിൽ നമ്മൾക്കിങ്ങനെ കിട്ടും സ്പോട്സ് മാസികയും വളരെ ഉപയോഗപ്പെട്ടു അത് പണ്ട് ഇപ്പോൾ പിന്നെ സോഷ്യല് മീഡിയ ഉണ്ടായത് കൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും നല്ല നല്ല കുറിപ്പുകളും കാര്യങ്ങളും നല്ല നല്ല ഫുട്ബോളിനെക്കുറിച്ച് അറിവുള്ള ആള്ക്കാരുടെ ഇതൊക്കെ കിട്ടാറുണ്ട്